ആ ചേട്ടാ നമസ്കാരം ഞാനേ ഒരു വീട് മേടിച്ചതിൻ്റെ കാര്യവുമായിട്ടു വന്നതാണ് സ്ഥലം ഒരു ഇരുപതുസെൻറിൻ്റെ ഉള്ളില് നോക്കണ അടങ്ങണ ഒരു വീടാണുദ്ദേശിക്കുന്നത് വീട് വീട് വേണം നമുക്ക് മെയിനായിട്ട് അതെ ആ ആ ടൗണിലേക്ക് അത്രയ്ക്ക് വേണ്ട അവിടെ കുറച്ചുപൈസ കൂടുതലാരിക്കുവല്ലോ നമുക്ക് കുറച്ചു വില്ലേജ് ഏരിയയായാലും കുഴപ്പമില്ല റോഡ്സൈഡ് അതെ റോഡിൻറെ മെയിൻ റോഡിന്നു ഒരു ഒരുകിലോമീറ്റർ രണ്ടുകിലോ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായാലും കുഴപ്പമൊന്നുമില്ല ഒരുപാടുള്ളിലേക്ക് പോകണ്ട എന്നാൽ ഒരു ഒന്നരകിലോമീറ്ററൊക്കെ കുഴപ്പമില്ല ഇല്ല അങ്ങനെയൊന്നുമില്ല അവിടൊക്കെ ആ റേറ്റ് കൂടുതലൊക്കെയാവും നമുക്ക് കുറച്ചു ലോ ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നത് അത്ര വലിയ വീടും വേണ്ട ചെറിയൊരു വീട് ഒരു രണ്ടു ബെഡ്റൂം ഒരു ഹാള് ഒരു സിറ്റ്ഔട്ട് ഒരു കിച്ചൺ ഒരു മറ്റേ വർക്ക്ഏരിയ അത്രേ നമ്മളുദ്ദേശിക്കുന്നുള്ളൂ

വാർപ്പ് മതി വാർപ്പ് ആ ആ ചെറിയ വീട് മതി ആ ഓടായാലും കുഴപ്പമില്ല അത്ര പഴയതല്ലാത്ത രീതിയിലുള്ളതാണേലും കുഴപ്പമൊന്നുമില്ല

ഓക്കെ അതിന് ആ കിണറുണ്ട് അല്ലെ ആ മുപ്പതുസെൻറിനു അവര് നമുക്കെത്ര ഒരു പേഴ്സ് എമൗണ്ട് പറയണേ വീടും സ്ഥലവും കൂടെ സെൻറിനു ഒന്നര നാപ്പത്തഞ്ചുലക്ഷം നമുക്കത്ര വലിയ ബഡ്ജറ്റില്ല നമ്മളൊരു മുപ്പത്തുമുപ്പത്തഞ്ചിൻറുള്ളില് തീർക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മളുദ്ദേശിക്കുന്നത് ആ അല്ല നമുക്കാ വീടിൻ്റെ ആ ഭാഗം കുറച്ചു നമുക്ക് കിട്ടിയാലേ കിണറും വീടും കൂടെ ബാക്കി പത്തുസെൻറ് വേണമെങ്കിൽ അവര് വേറെ വിറ്റോട്ടെ കുഴപ്പമില്ല ആ നമുക്കാ വീട് മെയിനായിട്ട് വീട് തന്നാണ് വേണ്ടത് അതായത് വീട് കെട്ടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല അപ്പോൾ വീടോടുകൂടി സ്ഥലം മേടിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും ആയല്ലോ പിന്നെ വേണമെങ്കിൽ ഒരു വാടകവീട്ടിലേക്കോ മറ്റോ മാറിയിട്ട് അവിടെ വേറെ വീടും കെട്ടാല്ലോ അങ്ങനെയൊക്കെയൊരു പ്ലാനിലാണ് അതാണ് നമ്മടുദ്ദേശം ഇപ്പോൾ ഇപ്പോൾ പഴയ ആ അപ്പോൾ ആ വീട് അത്ര വലിയ പഴക്കം ഒന്നുമില്ലല്ലോ ആ എത്ര മുറികളുണ്ടവിടെ ആ അതെ അല്ലേ ഓക്കെ എത്ര സ്ക്വയർഫീറ്റ് വരും ആ ഓക്കേ ആയിരം അതെ അല്ലെ ബാത്രൂം പുറത്താണല്ലേ അതെ ആ നമുക്കവിടെ ബാത്രൂം കെട്ടുന്നോണ്ട് വാസ്തുപരമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആ ആ അവിടെ മരങ്ങളും കാര്യങ്ങളോ എന്തേലും പ്രശ്നമുണ്ടോ മരം പ്രശ്നങ്ങളെന്തെലുമുണ്ടോ തെങ്ങോ വീടിൻ്റെ മുകളിലേക്ക്

ഓക്കെ ഓക്കെ അതെ അല്ലെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കെ അപ്പോൾ കുഴപ്പമില്ല ഇതിപ്പോൾ എന്നാൽ ഒന്ന് കാണാൻ പറ്റുക ഞായറാഴ്ച ഞായറാഴ്ച എപ്പോഴാണ് വരേണ്ടത് അപ്പോൾ മൂന്നുമണിക്കല്ലേ ആ ആ ഓക്കെ ഓക്കെ മൂന്നുമണിക്കല്ലേ അഡ്വാൻസ് വല്ലതും കൊടുക്കേണ്ടിവരുവോ അപ്പോൾ ആ വേറെ നമുക്കിപ്പോൾ വേറെ അവിടെ മറ്റേ പുറത്തുള്ള ആൾക്കാരോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ സ്ഥലത്തിന് നമുക്ക് ആ സിംഗിൾ ഓണറല്ലെ ആ ഓക്കെ ഓക്കെ അടുത്തൊക്കെ മറ്റേ വീടുകളും കാര്യങ്ങളൊക്കെയുണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അതെ അല്ലെ ഓക്കെ കിണർ കിണറാന്നല്ലേ പറഞ്ഞത് ആ ഓക്കെ ഓക്കേ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് എന്നാൽ അങ്ങനെ ഫിക്സ് ചെയ്യാം നമുക്ക് ഞായറാഴ്ച മൂന്നുമണിക്ക് പോയിക്കാണാവുന്ന രീതിയിലേ ആ ഓക്കേ ഓക്കെ താങ്ക്യൂ അപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ വിളിക്കാം എന്നാൽ ശരി ശരി ഓക്കേ